നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു തയ്യല് അതിന്റെ ബാഹ്യവശങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം അതിൽ താല്പ്പര്യമുള്ളത് കൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ്കളെല്ലാം അവൈലബിൾ ആവുന്നുണ്ടല്ലോ അപ്പം നമുക്ക് അത് കാണുമ്പോള് അത്തരത്തിലുള്ള ഫാഷന് ഡിസൈന് ഫാഷന് തരംഗത്തില് വരുന്ന എല്ലാ രീതിയിലുള്ള ഡ്രസ്സുകളും തയിച്ചിടാനും തയിച്ചിടാനും മറ്റുള്ളവർ തയിച്ച് കാണാനും ആഗ്രഹവമാണ് ഇപ്പം പണ്ടെ നയന്റ്റീസ് കാലഘട്ടത്തിലുള്ള പോലേയല്ല ഇപ്പോഴത്തെ ജനറേഷന്റെ ആ കുട്ടികളുടെ വസ്ത്രധാരണങ്ങളിലെല്ലാം ഒരുപാട് മാറ്റം വരുന്നു വന്നിട്ടുണ്ട് അത് ഒരുപാട് ഒരുപാട് ഒരുപാട് പുരോഗമനം അതിൽ ഉണ്ടായിട്ടുണ്ട് ഫാഷന് രംഗത്ത് ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലത്ത് വെച്ച് നോക്കുമ്പം ഇപ്പോഴത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണമാണ് അത് മറ്റും കാണുന്ന ചിലര് മറ്റുള്ളവര്ക്ക് അരോചകമായി തോന്നുന്നുവെങ്കിലും അത് അവരുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വരുന്ന ഓരോ തലമുറ മാറുന്നത് അനുസരിച്ച് അവരുടെ രീതിയിലുള്ള വസ്ത്രധാരണങ്ങള് നമ്മള്ക്കും നമ്മളും അതുപോലെ അതുപോലെത്തന്നെ കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഫാഷന് രംഗത്തെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഈയൊരു ജനറേഷൻ എന്ന് പറയുന്നത് ഫാഷന് തലമുറയെ ഫാഷന് രംഗത്തെ മുന്നേ എടുത്ത് വെച്ചിരിക്കുന്നത് ആയത് കൊണ്ട് വളരെ താല്പര്യം താല്പര്യത്തോടു കൂടിത്തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോവാന് എനിക്ക് ആഗ്രഹം ഉണ്ട് എന്റെ എന്റെ കണ്ണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിലും അത് അതേ തന്നെ കോപ്പി ചെയ്യാന് ഞാന് ആഗ്രഹിക്കുന്നില്ല അതിൽ എന്റേതായിട്ടുള്ള ഒരു ചില രീതികളൊക്കെ കൊണ്ടുവന്ന് ചില ഫാഷന്കളൊക്കെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോവാന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ ഏത് ഡ്രസ്സാ ഏത് ഡ്റെസാ ഏത് ഡ്രസ്സ് ആണെങ്കിലും അയിനകത്തുള്ള ഡിസൈനുകളൊക്കെ നോക്കിയും അതിന്റെ ഭംഗി നമ്മള്ക്ക് കണ്ടാല് നമുക്ക് തന്നെ ഒരിഷ്ടം തോന്നുന്ന രീതിയിലുള്ള അങ്ങനെത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകള് മറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് നമ്മള്ക്ക് താല്പര്യമുണ്ട് നമ്മളത് കണ്ട് അതിൽ ഏറ്റവും മുന്നിട്ട് കാണുന്ന ഇപ്പം ആ ആണ്കുട്ടികളും പെണ്കുട്ടികളും ഫാഷന് രംഗത്ത് മുന്പ് മുന്നിട്ട് മുന്നേറി നിൽക്കുന്നത് കൊണ്ട് നമ്മള് നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു നല്ല ശൈലി കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എനിക്ക് ഞാൻ അതിൽ വളരേയധികം എനിക്ക് അതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കാരണം നമ്മൾ ഓരോ ഒരോ ഓരോ ഡ്രസ്സിലും ഓരോ വെറൈറ്റികൾ കണ്ടെത്തി നമ്മൾ അതിനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാന് നോക്കണം വരും തലമുറകള്ക്ക് അത് ദൂഷികമാവുന്ന വിധത്തിലല്ല മറിച്ച് കണ്ടാല് നമ്മളുടെ നാടിനും വീടിനും ചേരുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കും കൂടുതൽ ശ്രമിക്കണം അങ്ങനെയാണ് വേണ്ടത് ഞാൻ എന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്ത്രത്തിലെ അതിലെ ഡിഫൈൻ അതിന്റെ എന്റയര് കോപ്പി ആയിട്ട് ചെയ്യാന് താല്പര്യമില്ല വേറെ ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അതെത്തിച്ച് കണ്ടെത്തി അതിനെ നല്ല രീതിയിലെന്റെ കഴിവുകളൊക്കെ ഉള്പ്പെടുത്തിക്കൊണ്ട് അത് പ്രസന്റ് ചെയ്യാന് ഞാന് താല്പര്യപ്പെടുന്നു